കേരളത്തില് വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളെന്നു പറഞ്ഞാല് അവർക്ക് സ്കൂളിലേക്ക് പോകാനും ഭയങ്കര ദൂരമാണ് ചില സ്കൂള് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തക്കെയുള്ള സ്കൂളൊക്കെ കുറെ അകലെയാണ് അവിടെ നമ്മളെപ്പോലത്തെ ആൾക്കാരൊക്കെ പഠിക്കാനൊക്കെ കഷ്ടപ്പാടാണ് ഭയങ്കര ദൂരമാണ് അവര് പോയ് വരാനും നമുക്ക് വൺ ബസിനു പൈസ കൊടുക്കാനൊന്നും നമുക്കില്ല കുട്ടികള് പോയി വരുന്ന വരെ നമുക്ക് സമാധാനം ഉണ്ടാവുല്ല അല്ലാത്ത കുട്ടികൾക്കെല്ലാം നല്ല അത്യാവശ്യം ബസിനു പോകാനും അതിനും ഇതിനൊക്കെ അവർക്ക് വീട്ടുകാര് ബസേൽപ്പിച്ചു കൊടുക്കും പിന്നെ അവർക്ക് ദൂരം നോക്കണ്ട ആവശ്യല്ല പിന്നെ പുസ്തകം ഇങ്ങനെ കാര്യങ്ങളാണ് നമുക്ക് വിദ്യാർത്ഥികൾക്ക് വേഗം കിട്ടണ്ടത് അതൊക്കെ കിട്ടാൻ കുറച്ച് വേഷമാണ് ഇപ്പൊ പിന്നെ അതൊന്നും പ്രശ്നല്ല ഇപ്പൊ എല്ലാർക്കും പുസ്തകങ്ങളും എല്ലാ കാര്യങ്ങളും വേഗം വേഗം നടത്തിക്കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കുട്ടികള് നല്ല രീതില് പോകുന്നുണ്ട് വരുന്നുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് വല്യ കഷ്ടപ്പാടൊന്നുല്ല പണ്ടത്തെപ്പോലൊന്നും ഒരു ബുദ്ധിമുട്ടും ഇപ്പോഴത്തെ മക്കൾക്കില്ല